ഏറ്റവും നല്ല മാർഗ്ഗമെന്നു പറയുന്നതു നല്ല ചൂട് വെള്ളം തിളപ്പിച്ച് അതൊരു കട്ടനിൽ കട്ടനിലിട്ട് കട്ടൻ ചായക്കകത്ത് നാരങ്ങാ നീര് പിഴിഞ്ഞൊഴിച്ച് കുടിക്കുക ഇഞ്ചിയും കൂടി ഇട്ടാൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് റിലീ ഇതു കിട്ടും കാരണം ഏറ്റവും ഉചിതമായ മാർഗ്ഗവും ഏറ്റവും പെട്ടെന്നു ചെയ്യാൻ പറ്റുന്നൊരു പാ മായ മായ മാർഗ്ഗമാണത് അതു പോലെ തന്നെ ഇഞ്ചി കടിക്കുന്നത് നല്ലതാണ് അപ്പം വയറിളക്കത്തിന് കുറച്ച് ആശ്വാസം കിട്ടും നാരങ്ങാ നീര് വെള്ളത്തിൽ പിഴിച്ച് പിഴിഞ്ഞൊഴിച്ച് കുടിച്ചാലും നല്ലതാണ് പക്ഷേ ഏറ്റവും ഫലപ്രദമായത് കട്ടൻ ചായക്കകത്ത് നാരങ്ങാ നീരും ഇഞ്ചിയും പിഴിഞ്ഞ് ഒഴിച്ച് കുടിക്കുന്നതാണ്